എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഈ ഒരു ന്യൂ ഇയർ സമയത്തു ഞാനൊരു ട്രിപ്പ് പോവുകയുണ്ടായി വാഗമണ്ണിലായിരുന്നു അത് ഞങ്ങൾ കാറിലായിരുന്നു പോയ് സ്കോർപിയോ കാറിലായിരുന്നു പൊയിക്കൊണ്ടിരുന്നത് അവിടെ ഞങ്ങൾ ഞങ്ങൾ ഒരു മാസം മുമ്പ് തന്നെ ട്രിപ്പിലേക്കുള്ള എല്ലാ പ്ലാനുകളും നടത്തി അവിടെ ഞങ്ങൾ വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തു വൺ മന്ത് വൺ മന്തിന് മുൻപ് പ്ലാനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് പ്ലാനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചെയ്താലേ നമുക്ക് ട്രിപ്പ് ഒന്ന് നമുക്ക് വൈബ് ആക്കി എടുക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനും ഓരോ കാര്യങ്ങളൊക്കെ പിന്നെന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും നമ്മളതുകൊണ്ട് എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടായിരുന്നു നമ്മൾ പോയത് അപ്പോൾ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വാഗമണ്ണിൽ നല്ല തണുപ്പുള്ള ഒരു സമയം ആയിരുന്നു അന്ന് അതിൻ്റെ കൂടെ മഴയും പെയ്തു അത് നമുക്കൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അവിടുത്തെ ഫുഡ് നമ്മുടെ നമുക്ക് അൽഫാമായിരുന്നു നല്ലൊരു നല്ലൊരു ഫുഡ് ആയിരുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെടുക തന്നെ ചെയ്തു ആ ട്രിപ്പ് നമുക്കൊരു ഇപ്പോഴും ഒരു മെമ്മറബിൾ ആണ് ഞങ്ങളുടെ ആ പ്ലാനിങ് ഇല്ലായിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു ഈ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ഫൈവ് ഡെയ്സ് മാറ്റി വെച്ചില്ലായിരുന്നു മാറ്റി വെച്ച് ലീവ് എടുത്ത് അങ്ങനൊരു കണക്റ്റ് ചെയ്തായിരുന്നു എല്ലാവരും പൊയിക്കൊണ്ടിരുന്നത്